കൃഷിക്കും തുടർച്ചയായ ജലവിതരണം ആവശ്യമുള്ള എല്ലാ പദ്ധതികൾക്കും വെള്ളത്തിൻ്റെ സ്രോതസ് അത്യാവശ്യമാണ് വീടുകളിലൊക്കെയാണെങ്കിൽ സാധാരണായി കിണറുണ്ട് അതുപോലെ കൃഷി സ്ഥലത്ത് ഒക്കെയാണെങ്കിൽ കുഴൽക്കിണര് എന്തെങ്കിലും വെച്ച് അത് വഴി വെള്ളം പമ്പ് ചെയ്യിച്ചാണ് കൃഷിയുടെ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് വെള്ളമെടുക്കുക വെള്ളമില്ലാത്ത പ്രദേശങ്ങളാണെങ്കിലത് വെള്ളത്തിനായിട്ട് അപേക്ഷ കൊടുത്ത് മുനിസിപ്പാലിറ്റി വഴി വെള്ളം എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് സാധാരണയായി കണ്ടുവരുന്നത് കുഴൽക്കിണറൊക്കെ വെച്ചതില്നിന്ന് വെള്ളം പമ്പ് ചെയ്യിപ്പിച്ച് കൃഷി സലങ്ങളിലേക്കും മറ്റും ഒരു പൈപ്പ് വഴിയൊക്കെ കൊടുക്കുന്നത് വെള്ളം എത്തിക്കുന്നതാണ് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത്